എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപമാണ് ഡാൻസ് എനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ഞാൻ ചെറിയ കുട്ടിയാവുമ്പോള് മുതലെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ് നാലു വർഷം ഞാൻ ഡാൻസ് പഠിച്ചു പഠിച്ചതിനുശേഷം ഞാനെന്ത് ചെയ്തു സ്കൂളുകളിലൊക്കെ പരിപാടി ഉണ്ടാവുമ്പോള് ഞാൻ ഡാൻസ് കളിക്കും അതുപോലെതന്നെ നാട്ടിലൊക്കെ പരിപാടി ഉണ്ടാവുമ്പോള് ഞാൻ ഡാൻസ് കളിക്കും സ്കൂളിലൊക്കെ ചെറിയ കുട്ടിയാവുമ്പോള് മുതലെ ഡാൻസ് കളിക്കുമായിരുന്നു ഒന്നാം ക്ലാസ് പഠിക്കുമ്പോള്ത്തന്നെ ടീച്ചർമാര് പരിപാടിക്ക് ആരെങ്കിലുമുണ്ടോ എന്ന് ചോദിക്കുമ്പോള് ഞാൻ നീച്ച് നില്ക്കും ഞാൻ വീട്ടിലൊന്നും ചോദിക്കില്ല വീട്ടില് അനുവാദം തേടേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ വീട്ടില്നിന്ന് സ്കൂളിൽനിന്ന് ടീച്ചർമാര് ഡാൻസിനുണ്ടോ എന്ന് ചോദിക്കുമ്പോള്ത്തന്നെ ഞാൻ നീച്ച് നില്ക്കും വേറെയാര് നീച്ചിലെങ്കിലും ഞാനുണ്ടാവും ഡാൻസിന് മുന്നില് അങ്ങനെയായിരുന്നു നാട്ടിലാണെങ്കിലും എന്തേലും പരിപാടി ഉണ്ടാവുമ്പോള് ഞാൻ ഡാൻസ് കളിക്കാൻ മുന്നിലാണ് ഡാൻസ് കളിച്ച് കഴിഞ്ഞാല് മറ്റുള്ളവര് വന്നിട്ട് നന്നായിരുന്നു മോളെ ഡാൻസ് സൂപ്പറായിരുന്നൂ എന്നു പറയുമ്പോള് നമുക്ക് കിട്ടുന്നൊരു ഒരു ഹാപ്പിനെസ്സുണ്ട് അതുതന്നെയാണ് വലുത് അതുപോലതന്നെ ഡാൻസിൻ്റെ പാട്ടുകളില് നൃത്തം ചെയ്യാന് അതുപോലെതന്നെ മേക്കപ്പിടാന് അതിൻ്റെ കോസ്റ്റ്യൂംസിടാന് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ സ്കൂളില് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോള് ഒരു ഇൻസിഡെൻ്റ് എനിക്ക് ഓർമ്മയുണ്ട് എട്ടാം ക്ലാസ്സില് പഠിക്കുമ്പോള് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അന്ന് പത്ത് പതിനഞ്ചോളം ആളുകള് പങ്കെടുത്തൊരു കോമ്പിറ്റീഷനായിരുന്നു അതില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതില് മൂന്നാം സ്ഥാനം ലഭിച്ചു പതിനഞ്ചാളുകളില് എനിക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചത് എനിക്ക് വളരെ അധികം സന്തോഷവും വളരെ അധികം കോൺഫിഡൻസും നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെതന്നെ നാട്ടിൽ ഉണ്ടാവുമ്പോഴും ഞാൻ കളിക്കും അതുപോലെതന്നെ കുറേ ആളുകള് വന്നിട്ട് നന്നായിരുന്നു മോളെ എന്ന് പറയുമ്പോള് എനിക്ക് ഭയങ്കരെ സന്തോഷമാണ്